കോവിഡ് സമയത്ത് കുറേ എന്താ പറണേ കുറേയധികം കുട്ടികളുടെ പഠനത്തിൽ നമ്മുടെ മൊബൈൽ ഫോണ് സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ കുറേ ദോഷങ്ങളുണ്ടായിട്ടുണ്ട് അതിൻ്റെ അകത്ത് മെയ്ൻ ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗുണം എന്ന് പറയുകയാണെങ്കിൽ പിള്ളേർ എന്നാ പെട്ടെന്ന് കൂടുതൽ പഠിക്കാനും പെട്ടെന്ന് പുതിയൊരു ടെക്നോളജീലോട്ട് വരാനും പെട്ടെന്ന് ഇനിയൊള്ള പുതിയ എഐ ആയാലും അങ്ങനെയുള്ള ടെക്നോളജികൾ ഫുള്ള് ഫുള്ള് ആയിട്ട് യൂസ് ചെയ്യാനും അതുപോലെ കൂടുതൽ ഗൂഗിള് എന്നാ ഗൂഗിൾ മീറ്റ് അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ നടത്താനും പിന്നെ ഉള്ള എന്നാൽ പിന്നെ എന്ന ഓൺലൈൻൽ ആയാലും കൂടുതൽ യൂറ്റൂബിൽക്കൂടെ അങ്ങനെത്തെ കുറേ ആപ്പ്കൾ യൂസ് ചെയ്ത് കൂടുതൽ നോളേജ് നേടാനൊക്കെ അവർക്ക് പറ്റി അതുപോലെ ദോഷങ്ങൾ കുറേ ഉണ്ട് മേയ്ൻ ആയിട്ട് ഗെയിമ് കളിക്കാനായിട്ടൊക്കെ അതായത് കൂടുതൽ സോഷ്യൽ മീഡ്യാ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ അങ്ങോട്ട് അട്രാക്റ്റ് ആയിട്ട് മാറാൻ തുടങ്ങി അതുപോലെ ഗേയ്മ്കൾ ഗേയ്മിൻറ്റെ അഡിഷൻ ഭയങ്കരമായിരുന്നു കാരണം വെച്ചാൽ ഇപ്പോൾ കളിക്കായിരുന്ന കുറേ ഗെയ്മ്സ്സ് ഇപ്പം കുറേ അഡിക്റ്റഡ് ആയിട്ടുള്ള കുറേ ഗെയിംസ്സ് അവർ കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴായാലും അവർക്കതിൻറ്റെ ഒരു ഇമ്പാക്റ്റ് ലോക്ഡൗൺ കഴിഞ്ഞിട്ടായാലും ഉണ്ട് അത് കുറച്ച് വളരെ ശോചനീയാവസ്ഥയാണ് ആ അങ്ങനെ കുറേ കുറേയധികം നല്ല കാര്യങ്ങളും ദോഷങ്ങളക്കെ കുട്ടികളുടെ പഠനത്തിൽ പിന്നെ മൊബൈൽ ഫോണ് കൂടുതലും ആ സമയത്ത് നടന്നിട്ടണ്ട്